ശുചിത്വമില്ലായ്മ തന്നെയാണ് നാടുകളെ നശിപ്പിക്കുന്നത് ഈ കൊറോണക്കാലം തന്നെ നമ്മൾ കണ്ടിരുന്നു വലിയ മഹാമാരിയാണ് വന്നത് അതിനെ ശുചിത്വം കൊണ്ട് നമുക്ക് ഈ തിരിച്ച് ഡിഫൻസ് ചെയ്യാമായിരുന്നു പക്ഷെ ആരും ഇതൊന്നും ശ്രദ്ധിക്കാതെ കെയറ് ചെയ്യാതെ മുന്നേറി അത്കൊണ്ട് തന്നെയാണ് ഈ നമ്മള് വർത്തകളിലൊക്കെ കേട്ടായിരുന്നു ഡ്രൈവർമാരൊക്കെ മാസ്ക്ക് ഇടാണ്ട് ഈ ഡ്രൈവ് ചെയ്ത് പോകുന്നു മറ്റുള്ളവരെ കയറ്റുന്നു ഇറക്കുന്നു കാശ് മേടിക്കുന്നു കൊടുക്കുന്നു ഇതിലൂടെ ഒരുപാട് പേർക്കാണ് ഈ കോവിഡ് എന്ന രോഗം കൈപ്പറ്റേണ്ടി വന്നത് മറ്റുള്ളവർ മാസ്ക്ക് ധരിച്ച് വന്നാലും ഇവർ മാസ്ക്ക് ധരിക്കാതെ പോയത് കൊണ്ട് ഇവരുടെ പക്കൽ നിന്നും മറ്റുള്ളവർക്ക് ഈ കോവിഡ് എന്ന മഹാരോഗം കൈപ്പറ്റേണ്ടി വന്നു അങ്ങനെയൊരു വലിയ വിപത്തിനെയാണ് നമുക്ക് ഇന്ന് ഈ ലോകത്ത് കാണാൻ കഴിഞ്ഞത് ശുചിത്വം ഉണ്ടായിരുന്നെങ്കില് ആ ഒരു ഡ്രൈവർ ശ്രദ്ധിച്ചിരുന്നെങ്കില് ഒരുപാട് പേർക്ക് ഈ കൊറോണ എന്ന രോഗം വരാതെ നോക്കാമായിരുന്നു ഡ്രൈവറൊന്ന് മാസ്ക്ക് ധരിച്ചാൽ മതിയായിരുന്നു അയാളുടെ ശുചിത്വമില്ലായ്മ കൊണ്ടാണ് മറ്റുള്ളവർക്കും ഈ രോഗം വന്നതിന് കാരണം എന്ന് തന്നെയാണ് പറയാനുള്ളത്